ഹലോ ഇത് ദർശന ഹോസ്പിറ്റലിലെ ഐ ഡോക്ടർ അല്ലേ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണേ ഏ നമുക്ക് മറ്റന്നാൾക്കൊരു പെയ്ഡ് കിട്ടുമോ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ നമ്മളെ ആൾക്ക് ഐ ടെസ്റ്റ് ചെയ്യാനായിരുന്നേ തിമിരം ഉണ്ടായിരുന്നേ ഐയിൽ ആ ഓക്കെ നെ നെക്സ്റ്റ് മൺഡേ മതി എത്ര എത്രയാണ് ടൈം എപ്പോൾ ആണ് അത് ബുക്കിങ്ങ് കിട്ടുക രാവിലെ ആണോ ആ ഓക്കെ ആണ് ആ ടൈം ഓക്കെ ആണ് എൻ്റെ പേര് സജിത് വയസ്സ് അറുപത് ആ കുറച്ച് പ്രഷർ കൂടുതൽ ഉണ്ടായിരുന്നു മുമ്പ് അതേപോലെ തന്നെ കണ്ണിൽ കുറച്ച് ചുവപ്പ് കളർ കയറിയിട്ടുണ്ടായിരുന്നു മുന്നേ എവിടെയും കാണിച്ചിട്ടില്ല പ്രഷർ കൂടിയപ്പോൾ അങ്ങനെ കാര്യമാക്കിയിട്ടില്ല അത് ഇല്ല കണ്ണിനായിട്ട് വേറെ ആശു ആശുപത്രിയിൽ ആശുപത്രി കാണിച്ചിട്ടില്ല ഇപ്പോൾ അത് ആദ്യമായിട്ട് തന്നെ വിളിക്കുവാണ് നമുക്ക് കണ്ണിൻ്റെ റെഡ് കളർ കൂടിയപ്പോളേ എന്താണ് അറിയാൻ വേണ്ടി ഓക്കെ അതൊക്കെ എന്നാൽ നാളെ ഞാൻ പോയി ചെക്ക് ചെയ് ഉപ്പാനെകൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് തിങ്കളാഴ്ച്ച ഞാൻ അങ്ങോട്ട് വരാം ഇപ്പോൾ ആണല്ലേ ചുവപ്പുണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയാൽ അത്ര അല്ല ഇതായിരുന്നു അതാണ് ഞാൻ വിളിച്ചത്

ആ അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച്ച അ വരാം ഞങ്ങള വീട് മണത്തല മണത്തല ബേബി റോഡ് ആയിട്ടാണ് വീട് വരുന്നത് ആ ആദ്യ റോ തന്നെയാണ് ആ ഓക്കെ അപ്പം നമുക്ക് ഓപ്പറേഷൻ്റെ എന്തെങ്കിലും വരുവോ ഇപ്പോൾ കണ്ണ് നന്നായി ചുവപ്പുണ്ട് ആ അതാണ് നല്ലത് ആ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഓപ്പറേഷൻ റേറ്റ് എങ്ങനെയായിരിക്കും ഓക്കെ അത്ര വരില്ലേ അപ്പം ഈ ഓപ്പറേഷൻ ചെയ്തുകഴിഞ്ഞിട്ട് നമുക്ക് കുറേ ദിവസം കണ്ണ് പൊടി തട്ടാണ്ടെ ഇരിക്കണോ ആ ഓക്കെ അതെ നമുക്ക് അതൊക്കെ കൂടിയിട്ടാണോ ഈ ഫണ്ട് പറഞ്ഞത് ആ ഓക്കെ അത് കുഴപ്പമില്ല അപ്പം എന്നാൽ തിങ്കളാഴ്ച്ച വരാമല്ലേ

ആ ഓക്കെ എന്നാൽ മൺഡേ ഞാൻ അങ്ങോട്ട് വരാം ആ ഓക്കെ ശരി